ഞാൻ കുക്കിങ് വളരെ ഇഷ്ട്ടപ്പെടുന്ന ഒരാളാണ് സോ കുക്കിങ്ങ്ന്ന് പറയുമ്പോൾ ലൈക് സ്ട്രെസ്സടിക്കുമ്പോഴും അല്ലെങ്കിൽ ക്രേവിങ്സ്ണ്ടാവുമ്പോഴും ഞാൻ തന്നെ കുക്ക് ചെയ്താണ് ഫുഡ് കഴിക്കാറ് മോസ്റ്റ്ലി ഞാനൊരു സ്വീറ്റ് പേഴ്സണാണ് സ്വീറ്റ് പേഴ്സെന്ന് പറയുമ്പോൾ ഒമ്പയ്സ്ലി പഞ്ചസാരയാണ് പഞ്ചസാര പഞ്ചസാരയ്ക്ക് സബ്സ്റ്റിറ്റിയൂട്ടായിട്ട് പല സ്വീറ്റ്നസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ശർക്കര കൽക്കണ്ടം ഒക്കെ യൂസ് ചെയ്യാറുണ്ട് എൻഡ് അ പഞ്ചസാരാ വെച്ചിട്ട് ഏറ്റോം സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പുഡിങ്ങള് മിൽക് പുഡിങ്ങള് ബ്രെഡ് ബ്രെഡ് പുഡിങ്ങള് കാരമലൈസ് പുഡിങ്ങള് പിന്നെ ഇത് ബർഫികള് കുറച്ച് നേരമൊന്ന് മെനക്കെട്ടാൽ മതി പക്ഷേ ഇതിൻ്റെ കണ്ടെൻ് ഭയങ്കര ഭയങ്കര ചെറിയ ചെറിയ ഭയങ്കര മിനിമൽ കണ്ടെൻറ്റ് റെസിപ്പീസൊള്ള ഫുഡാണ് ഞാൻ കൂടുതലുണ്ടാക്കുന്നത് പിന്നെ എനിക്ക് മുട്ട വെച്ചിട്ട് കുറെ പരീക്ഷണങ്ങൾ നടത്താൻ ഇഷ്ട്ടമാണ് കാരണം മുട്ട ഒരു വെർസറ്റയിൽ സാധനമാണ് അപ്പോൾ നമുക്ക് എന്താ പറയാ എന്ത് വേണമെങ്കിലും നമുക്ക് മുട്ട വെച്ചിട്ട് പരീഷിക്കാം ഒരുപാട് വിഭവങ്ങളുണ്ടാക്കാം നമ്മുടെ വീട്ടിൽ വേ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലുള്ളത് തന്നെ മതി പിന്നെ ബ്രെഡ്സ് ആൻ കേക്ക്സാണ് ഞാൻ പിന്നേം എക്സ്പിരിമെൻറ്റ് ചെയ്യുന്ന വേറൊരു വിഭാഗം ബ്രെഡ്സ്ന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറയാ ആയത് നമ്മൾ കടെന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡ്കളൊക്കെ ഞ മാക്സിമം ഞാൻ വീട്ടിൽ നിന്ന് മാത്രമേ യൂസ് ചെയ്യാറുള്ളു വീറ്റായിരിക്കും ഞാൻ മോസ്റ്റ് പ്രൊബബ്ലി യൂസ് ചെയ്യുക ബിക്കസ് മൈദയ്ക്കൊരുപാട് സൈഡെഫക്ട്സ്കൾ ഉൾ ഉള്ളത് കൊണ്ട് ഞാൻ വീറ്റ് യൂസ് ചെയ്ത് ഗോതമ്പ് യൂസ് ചെയ്തിട്ടുള്ള ബ്രെഡുകളാണ് കൂടുതലും ചെയ്യുന്നത് അപ്പം നമ്മൾ അതിനെ എന്താ അതിൽ കോക്കനെട്ട് ആഡ് ചെയ്യും ഞാൻ അല്ലെങ്കിൽ പല ബ്രെഡ്കള്ണ്ടല്ലൊ നമുക്ക് ഇൻ്റെർനാഷ്ണലീ അവൈലബ്ളായിട്ടുള്ള പല വെറൈറ്റിലുള്ള ബ്രെഡുകളുണ്ട് ഇപ്പെല്ലാം റെസിപ്പീ നമുക്കോൺലൈൻൽ അവൈലബ്ളായത് കൊണ്ട് ഒരു ഇതാണ് ഒരു ചലെഞ്ചിങ് പോലെയാണ് ഞാനെടുക്കുന്നത് ലൈക് ട്രൈ ചെയ്യാന്നുള്ളത് ഇതൊക്കെ എക്സ്പിരിമെൻ്റെ ചെയ്യുക ട്രൈ ചെയ്യാന്നുള്ളത് ഞാനൊരു ചലെഞ്ചിങായിട്ടാണ് എടുക്കാറ് പിന്നെ ബ്രെഡ്കൾ ആൻഡ് കേക്ക്സ് ഒബിയെസ്ലി കേക്ക്സ് സോ ഈസി റ്റു മേക്ക് നമുക്കൊരോവനുണ്ടെങ്കിൽ ബെയ്ക്കിങ് പൗഡ്രറ്ണ്ടെങ്കിൽ ഇറ്റ് ഈസ് നമുക്ക് ആവശ്യമുള്ള കെയ്ക്ക്കളുണ്ടാക്കാം ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കേക്ക്കൾ ബ്രൗണീസ് പുഡിങ്ങളൊക്കെ ഉണ്ടാക്കാം മോസ്റ്റ് മോർ ഇൻറ്റു സ്വീറ്റ് പേഴ്സൺ ആയത്കൊണ്ടാണ് ഞാൻ ഇതൊക്കെ കൂടുതലും പ്രിഫെർ ചെയ്യുന്നത് ആൻഡ് കറികളൊക്കെ ഞാൻ നമ്മുടെ ശൈലിയിൽ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കാറ് അതായത് ഇപ്പം ഇപ്പമൊരു ഈ ഒരേര്യയിൽ അതായത് കോട്ടയം ഭാഗത്ത് അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ഭാഗത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലുണ്ട് എന്ത് കറി വെച്ചാലും അതിൽ തേങ്ങാ വെളിച്ചെണ്ണ കറിവേപ്പില കടുക് അതിൻ്റെയൊക്കെ യൂസ് ഭയങ്കര കൂടുതലാണ് അതെന്നെ അതൊക്കെയാണ് നല്ല ടേസ്റ്റ്മെയ്ക്കേഴ്സ്ന്ന് പറയുന്നത് അപ്പതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കറികളൊക്കെ ആയിരിക്കും കൂടുതൽ വെക്കുക അപ്പം തന്നെ എത്ര നേരം വേണമെങ്കിലും നിന്ന് കുക്ക് ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല ഒരോണ സദ്യയൊക്കെ വീട്ടിലേക്ക് ഒരു മൂന്നോ നാലോ അംഗങ്ങളൊക്കുള്ള വീട്ടിലേക്ക് ചെയ്യുന്നതിന് ഇഷ്ട്ടവാണ് പിന്നെ അ സ്റ്റു സ്റ്റൂ ആണെനിക്ക് കുറച്ചും കൂടെ എന്നാൽ ഏരുവെനിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സ്റ്റ്യൂസ് അങ്ങനെ ഭയങ്കര മൈൽഡായിട്ടുള്ള ഫുഡുകളാണ് ഞാൻ കൂടുതലും ചൂസ് ചെയ്യുക അപ്പം അതിൽ കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ നടത്തും നമുക്ക് നാട്ടീ കിട്ടുന്ന ഇപ്പം മഴയുടെ മാങ്ങേടെ സീസണാവ്മ്പം മാങ്ങ വെച്ചിട്ടുള്ള വിഭവങ്ങൾ മാങ്ങാ വെച്ചിട്ടുള്ള കറികൾ ചക്കേടെ സീസണാവുമ്പോൾ ചക്ക വെച്ചിട്ടുള്ള കറികൾ ഇപ്പം വെള്ളം പൊക്കം ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ആറ്റുമീനൊക്കെ വെച്ചിട്ടുള്ള ഡിഫ്രൻ സാധനങ്ങൾ പിന്നെ നമ്മുടെ പറമ്പിലൊക്കെയുണ്ടാവുന്ന പുൽ ഇത് എഡിബിളായിട്ടുള്ള ചീരകൾ ഇതൊക്കെ മാക്സിമം ഫുഡിലുൾപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്യുക പിന്നെ റൈസ് ഞാനങ്ങനെ ചൂസ് ചെയ്യാറില്ല റൈസിന് സബ്സ്റ്റിറ്റുട്ടായിട്ട് ഞാനെന്തേലും ബ്രെഡായിരിക്കും ചൂസ് ചെയ്യുന്നത് അതായത് ചപ്പാത്തിയോ ഇപ്പം വീട്ടിത്തന്നെ ഉണ്ടാക്കാം നമുക്ക് ചപ്പാത്തീ പോലത്തെ നാന് തന്തൂരി റൊട്ടി ഒക്കെ പോലത്തെ സാധനങ്ങൾ പിന്നെ കോഫീ അഡിക്റ്റാണ് സൊ കോഫീ ആൻഡ് കോഫീ ഫ്ലേവേഡ് സാധനങ്ങൾ വളരെ ട്രൈ ചെയ്യാറുണ്ട് പിന്നേം കൂടുതലായി ഉപയോഗിക്കുന്നത് ഷുഗറാ കേട്ടൊ ഷുഗറാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ശർക്കരേനെകാട്ടിലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ട്ടം ശർക്കരയ്ക്കൊരു കുത്തൽ ഒരു വേറൊരു ഇത് വരും അതിലും എനിക്കിഷ്ട്ടം പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത് പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടം റോക് റോക് ഷുഗറ് ഒക്കെ യൂസ് ചെയ്യും പിന്നെ ഫ്രൂട്സ് വെച്ചിട്ടുള്ള എന്തെങ്കിലു ഒക്കെ വിഭവമാണെങ്കിൽ മാക്സിമാ ആ ഫ്രൂട്ടിൻ്റെ തന്നെ എന്താ പറയാ ഷുഗറി ഫ്രൂട്ടിൻ്റെ മധുരം മുൻ നിൽക്കുന്ന രീതീയിലുള്ള അരിക്ക് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക പിന്നെ ഹെൽത്തിയായിട്ട് ഡെയറ്റും കാര്യങ്ങളൊക്കെ നോക്കും നോക്കുന്നൊരു ഇതിലാണെങ്കിൽ ഇത് ഹണി സബ്സ്റ്റിറ്റൂറ്റായിട്ട് എടുക്കാറുണ്ട് അങ്ങനെ പിന്നേം പിന്നെ എനിക്ക് കേരളാ അ നമ്മുടെ ഈ നാ നാട്ടിലുള്ള ഡിഷ്കളൊക്കെ വളരെ ഇഷ്ട്ടാവാണ് ഇവിടുത്തെ നമ്മുടെ കേരളാ ഫുഡൊക്കെ എനിക്ക് ട്രൈ ബിക്കൊസ് ചിലതൊക്കെ ഭയങ്കര ട്രിക്കിയാണ് കറക്റ്റ് എമൗണ്ടിൽ സാധനങ്ങൾ വന്ന് ചേരുവകൾ വന്നെങ്കിൽ അതിന് അതിൻറ്റേതായ ഒരൊധൻറ്റിക്ക് ട്ടേസ്റ്റൊക്കെ വരത്തുള്ളു സൊ അതൊക്കെ ഞാൻ ചലെഞ്ചിങ്ങായിട്ടെടുത്ത് കുക്ക് ചെയ്യുന്നൊരാളാണ് എല്ലാ ട്രിക്കിയായിട്ടുള്ള സാധനങ്ങളാണ് അവിയൽ എസ്പെഷലി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ അവിയൽന് അവിയൽൻ്റെതായ ഒരു ടെയ്സ്റ്റ് വരണമെങ്കിൽ അതിലാണ് തേങ്ങേടേം വെളിച്ചെണ്ണെടേം ഇപ്പറയണ കണക്ക് കറിവേപ്പിലേടേം പിന്നെ എല്ലാ വെജ്റ്റബ്ൾസിൻ്റെയൊക്കെ ഒരു മിക്സ്ഡ് ഫ്ളേവറ് പക്ക പക്കാ റേഷിയോലുണ്ടെങ്കിൽ മാത്രമേ അത് റെഡിയാവുള്ളു